ഗ്രാമീണ കേരളത്തില് ഇപ്പോൾ ഒരുപാട് വാര്ത്താ ഉറവിടങ്ങളുണ്ട് ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഗ്രാമത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടിവിയും അതുപോലെ തന്നെ സ്മാർട്ട്ഫോൺസും ഉണ്ട് അതുകൊണ്ടു തന്നെ വാർത്തകൾ ഗ്രാമീണ ആൾക്കാർക്ക് അറിയാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ പണ്ടത്തെക്കാളും ഇപ്പോൾ കൂടുതൽ എളുപ്പമെന്നു പറയാം ടി വിയിൽ തന്നെ ഒരുപാട് ന്യൂസ് ചാനൽസുണ്ട് അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് മാതൃഭൂമി മനോരമ ട്വന്റി ഫോര് ന്യൂസ് ചാനൽ മീഡിയ വൺ അങ്ങനെ ഒരുപാട് ന്യൂസ് ചാനൽസ് ഉണ്ട് അതുവഴി ഇപ്പോൾ നടക്കുന്ന കറണ്ടഫെയെഴ്സും പൊളിറ്റിക്സിനെ പറ്റിയും വാർത്തകളെപ്പറ്റിയും എല്ലാം ഇന്ഡെപ്തായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നു ഗ്രാമത്തിലുള്ളവർക്ക് മാത്രവുമല്ല ഗ്രാമത്തിൽ അങ്ങേ അങ്ങുമിങ്ങും നടക്കുന്ന കാര്യങ്ങൾ വരെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസില് ആയാലും ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസുകളുണ്ട് അതായത് എഫ് ഐ ആർ പോലുള്ള പ്രോഗ്രാംസുകൾ അത് ഗ്രാമത്തിലുള്ളവർ ഉള്ളവരെ കൂടുതൽ അറിവുകൾ പറഞ്ഞു നൽകുന്നു ഇപ്പോൾ ന്യൂസ് പേപ്പർ ആയാലും മിക്ക വീടുകളിലും ഉണ്ട് അതായത് മാതൃഭൂമി മനോരമ കേരള കൗമുദി അങ്ങനെയുള്ള ന്യൂസ് പേപ്പർ ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് മലയാള മനോരമ തന്നെയായിരിക്കും ഗ്രാമങ്ങളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വാർത്ത എത്തിച്ചുകൊടുക്കാൻ ന്യൂസ് പേപ്പറുകളെ കൊണ്ടും സാധിക്കുന്നുണ്ട് പണ്ടത്തെ കാലത്തെ കാട്ടിയും ഇപ്പോൾ കൂടുതല് എളുപ്പമാണ് ഗ്രാമങ്ങളില് വാര്ത്ത അറിയാന് വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ എല്ലാവരുടെ കൈയിലും സ്മാർട്ട് ഫോൺ ഉള്ളതുകൊണ്ട് അതും എളുപ്പമായി അതിൽ നമുക്ക് യൂട്യൂബിൽ ഇരുന്നു കൊണ്ട് തന്നെ തൽസമയം നമുക്ക് ന്യൂസ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ ന്യൂസ് ചാനല്സുണ്ട് അതുവഴിയും വാർത്തകൾ നമുക്ക് പലരെടുത്തും എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വലിയൊരു ഘടകം തന്നെയാണ് അതായത് നമ്മളുടെ ഇന്സ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്ട്സ്ആപ് പ്രിന്റെസ്റ്റ് അങ്ങനെ അങ്ങനെ യൊക്കെയുള്ള ഓരോ ആപ്പുകളില് നിന്ന് സോഷ്യല് നിന്ന് സോഷ്യൽ മീഡിയകളിൽ നിന്ന് നമുക്ക് വാർത്തകൾ അറിയാൻ പറ്റും ഒരു വിധത്തിൽ പറഞ്ഞാൽ ന്യൂസ് ചാനലുകള് ന്യൂസ് ചാനലുകൾക്ക് കിട്ടുന്നതിനു മുന്നേ ഈ സോഷ്യൽ മീഡിയയിൽ ആ ന്യൂസ് പരന്നിട്ടുണ്ടായിരിക്കും എന്നിട്ടായിരിക്കും ചിലപ്പോൾ ന്യൂസ് ചാനലിന് ആ ഒരു ന്യൂസ് കിട്ടുക എന്തായാലും പണ്ടത്തെക്കാളും ഇപ്പോഴും ഇപ്പോഴാണ് ഗ്രാമത്തിൽ ഒരുപാട് പേർ വാർത്തകൾ അറിയാൻ തുടങ്ങുന്നത്